എനിക്ക് നാളെ ഒരു കോഴിക്കോട് നിന്ന് ഒരു ഫ്ലൈറ്റ് ഉണ്ട് ഒമാനിലേക്ക് ഞാൻ പോവുകയാണ് അപ്പോൾ ഒരു നാലുമണിക്കാണ് ഫ്ലൈറ്റ് അപ്പം ഞാൻ വയനാട്ടിൽ നിന്ന് ഞാൻ വയനാട്ടിൽ നിന്നാണ് വിളിക്കുന്നത് അപ്പോൾ എനിക്ക് വയനാട്ടിൽ നിന്ന് ഞാൻ കോഴിക്കോടേയ്ക്കൊരു ഒമ്പത് മണി ബസ്സിൽ വന്നാൽ എനിക്ക് കോഴിക്കോട് ടൗണിൽ ഞാൻ ഒരു പന്ത്രണ്ടരയാവുമ്പോൾ ഞാനെത്തും അപ്പോൾ ഒരു ഒന്നര ഒന്നര ആകുമ്പോഴേക്കും എനിക്ക് കോഴിക്കോട് എയർപോർട്ടിൽ എത്തണം അപ്പോൾ ഒരു ഒന്നര ആകുമ്പോൾ അവിടെ ഒരു നിങ്ങൾ ഒരു ഓട്ടോ കിട്ടുമോയെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓട്ടോ ഓട്ടോയെന്നു പറയുമ്പോൾ ഒരു ഒന്നര സമയത്ത് അങ്ങനെ ലഭ്യമല്ലല്ലോ അപ്പോൾ നിങ്ങളുടെ ഓട്ടോ ലഭ്യമാണോ എന്നറിയാൻ വേണ്ടി അന്വേഷിക്കാൻ വേണ്ടിയാണ് വിളിച്ചത് അപ്പോൾ എനിക്ക് ഒന്നരക്ക് ഒര് ഇത് കിട്ടിയാൽ നാലുമണിക്ക് ഫ്ലൈറ്റ് കയറണമെങ്കിൽ ഒരു ഒരു രണ്ടര മൂന്നു മണിക്ക് മണിക്കൂർ മുൻപേ എത്തണം അല്ലെങ്കിൽ ഒര് മണിക്കൂർ മുമ്പേ എത്തണം അപ്പോൾ എനിക്ക് ആ ഒരു സമയത്തേക്ക് വേണമായിരുന്നു അപ്പോൾ അതു കിട്ടുമോയെന്നറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു